ഈ ആധുനിക കാലഘട്ടത്തിലെ ഇന്ത്യ എന്ന മഹാരാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പെട്ടതാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അഥവാ നമ്മുടെ ഇടയിലുള്ള ഭൂചലനങ്ങൾ മണ്ണൊലിപ്പുകൾ വെള്ളപ്പൊക്കം സുനാമി ചുലിക്കാറ്റ് എന്നിവ പോരാത്തത് അതിനൊക്കെ കാരണങ്ങൾ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് കാരണമെന്തെന്നാൽ അവിടെയുള്ള നദികൾ കാടുകൾ മലകൾ കുന്നുകൾ എല്ലാം ദുരുപയോഗം ചെയ്യുന്നതിലൂടെ അത് വലിയ ഒരു പാരിസ്ഥിരിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂചലനം മണ്ണൊലിപ്പ് വെള്ളപ്പൊക്കം എന്നിവയൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഇടയിലുള്ള കാടുകൾ കുന്നുകൾ നദികൾ ഒക്കെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അവിടെയുള്ള മരങ്ങൾ വെട്ടുക അവിടെയുള്ള അവിടെയുള്ള മണ്ണുകൾ കുന്നുകൾ നിരത്തി അവിടെ പുതിയ പുതിയ ഫാക്ടറികൾ ഇൻഡ്രസ്ട്രികൾ അതുപോലെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഷോപ്പുകൾ എല്ലാം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ പരിസ്ഥിതിയാണ് പരിസ്ഥിതി എന്നു പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള നമുക്ക് ഓക്സിജന് നമുക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു വസ്തുവാണല്ലോ വായു എന്നുള്ളത് ആ വായു നൽക്കുന്ന നല്ല പ്യുവർ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വായു നൽകുന്ന മരങ്ങളെയാണ് നമ്മൾ നശിപ്പിച്ചു നശി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഭൂചലനം ഭൂമികൾ ഭൂമിയുടെ ചലനം അതുപോലെത്തന്നെ മണ്ണൊലിപ്പ് വെള്ളപ്പൊക്കം സുനാമി ചുഴലിക്കാറ്റ് എന്നിവയൊക്കെ ഉണ്ടാവുന്നത് അതുപോലെത്തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ചെന്നുനോക്കിയാൻ മനസ്സിലാവും കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചുറ്റും നമ്മുടെ ചുറ്റും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇടയിലുള്ള ഭൂചലനങ്ങൾ മണ്ണൊലിപ്പ് വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് അധികം കൂടിയിട്ടുണ്ട് കാരണം എന്തെന്നാൽ അതിനൊക്കെ കാരണം നമ്മുടെ ഇടയിലുള്ള കാടുകൾ അതിലുള്ള മലകൾ കുന്നുകൾ അതിലുള്ള മണ്ണ് അതിനെയെല്ലാം നമ്മൾ നശിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതും അതുപോലെത്തന്നെ ഈ നദികൾ കാടുകൾ മലകൾ കുന്നുകളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നതിൽ ചെയ്യുന്നതിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു പരിസ്ഥിതി നമ്മളെ ചുറ്റുമുള്ള ഈ ഒരു പ്രകൃതിയിൽ വലിയ വലിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത് അത് കാലാവസ്ഥകളിലാവട്ടെ വേറെ ഏത് വിഷയങ്ങളിലാവട്ടെ അതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേനൽ വേനൽ അതുപോലെത്തന്നെ മഴ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വേനൽ കുറച്ച് കൂടുന്നൊരവസ്ഥ വേനൽ അവസ്ഥ മഴ ഇല്ലാത്തൊരവസ്ഥ ഈ മരം കാര്യങ്ങളൊക്കെ എന്താണ് മരം അതുപോലെ കുന്നുകൾ മലകളൊക്കെ നിരത്തുമ്പോൾ അവിടെ മഴയുടെ സാധ്യത മഴയുടെ ലഭ്യത കുറവ് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വേനൽ കൂടുന്നു ചൂട് കൂടുന്നു സൂര്യൻ്റെ താപമേൽക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഓരോ ഈ ഒരു ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഓരോ അഭ്യാസങ്ങൾ അവരുടെ ഓരോ പെരുമാറ്റങ്ങളിലൂടെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരവസ്ഥയൊക്കെ നമ്മളെന്താണ് ദിവസേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരവസ്ഥ പാരിസ്ഥിതിക മാറ്റങ്ങളാണ് പാരിസ്ഥിതി മാറ്റങ്ങളാണ് ഓരോ വർഷങ്ങൾ വരുമ്പോഴും അവിടെയെല്ലാം മനുഷ്യർ എന്താണ് അവരുടെ മനുഷ്യർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടുുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭൂചലനത്തിലൂടെയോ അല്ലെങ്കിൽ മണ്ണൊലിപ്പിലൂടെയോ വെള്ളപ്പൊക്കത്തിലൂടെയോ ചുഴലിക്കാറ്റിലൂടെയോ സുനാമിയിലൂടെയോ ഒക്കെ ആയിരിക്കും ഇതിനെല്ലാം കാരണം കാരണം മനുഷ്യരാണ് മനുഷ്യർ നന്നേ നന്നാവേണ്ടതുണ്ട് സ്വന്തം സ്വന്തം നന്നാവേണ്ടതുണ്ട് അത് അതുപോലെ ബാക്കിയുള്ളവരെ നന്നേ നന്നാക്കേണ്ടവരുമാണ് മനുഷ്യർ എന്നുള്ളത്